എൻ്റെ വളരെ ചെറുപ്പത്തിൽ മുതലുള്ള ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ നൃത്തം പഠിക്കണം എന്നുള്ളത് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണംകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല പക്ഷേ എൻ്റെ എൻ്റെ ഭാവി ജീവിതത്തിൽ എൻ്റെ കല്ല്യാണ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് അതിനുള്ള അവസരം എനിക്കൊരുക്കി തന്നു പക്ഷേ അരങ്ങേറ്റ സമയമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു മൂന്നാം മാസത്തിൽ മൂന്നാം മാസം വരെ റെസ്റ്റ് വരെ വേണമെന്ന് പറഞ്ഞ എനിക്ക് അരങ്ങേറ്റം ചെയ്യാൻ സാധിക്കുമോ എന്ന് ഓർത്ത് ഞാൻ വളരെ ഭയപ്പെട്ടു പക്ഷേ നൃത്തത്തോടുള്ള സ്നേഹവും ആ ഒരു കരുതലും ഞാൻ എൻ്റെ പ്രാർഥനയും എല്ലാംകൊണ്ട് എല്ലാംകൊണ്ടും എനിക്ക് അരങ്ങേറ്റം ചെയ്യുവാൻ വേണ്ടി സാധിച്ചു എനിക്കൊരു കുഴപ്പം പോലും ഇല്ലാതെ എൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്കാ നൃത്തം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തന്നെ എനിക്ക് അരങ്ങേറ്റം ചെയ്യുവാൻ വേണ്ടി വളരെ അധികം സാധിച്ചു ഇപ്പോഴും ഞാൻ നൃത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തു വയ്യാഴ്ക ഉണ്ടായാലും ഞാനതിനെ വളരെ അധികം സ്നേഹിച്ച് കൈകാര്യം ചെയ്യുന്നു